ആ ഹലോ ഊബറല്ലേ ഞാന് എൻ്റെ പേര് അക്ഷയ് ആണ് ഞാൻ കഴിഞ്ഞ മാസം ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് മൂന്നാറിലേക്ക് പോകാനായിരുന്നു ആ നമ്പർ തരാം നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ടു എയ്റ്റ് ടു ഡബിൾ വൺ ആ അതെ അതെ അന്ന് സൺഡേ രാവിലെ ഞായറാഴ്ച രാവിലെ പോയിട്ട് തിങ്കൾ ചൊവ്വാഴ്ച വൈകിട്ട് വരുന്നപോലെ ആ അപ്പം അന്ന് പോയിട്ടുണ്ടായിരുന്നു ആ കുഴപ്പമില്ല നല്ല ഡ്രൈവർ ആയാലും മതി പെരുമാറ്റമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തും എത്തിച്ച് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒക്കെ അപ്പോൾ നല്ല രീതിയില് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇപ്പം ഞാൻ വിളിച്ചത് എന്തിനെന്ന് പറഞ്ഞാൽ ആ എനിക്ക് ആ ഡ്രൈവറിനെയാണോ ഈ അടുത്ത മാസം ഒന്ന് വയനാട് വരെ പോകണമായിരുന്നേ അപ്പോൾ എനിക്ക് ഇതേ ക്യാബ് തന്നെ ഒന്ന് വേണമെന്നാണ് ആ ആ അത് തന്നെ ഡ്രൈവറ് ആ അവൻ്റെ പേര് ആ ജോസഫ് എന്നായിരുന്നു ആ ആ അയാളെ തന്നെ കിട്ടാൻ വല്ല വഴിയുണ്ടോ ആ ഓക്കേ ചെക്ക് ചെയ്യ് ആ ഉണ്ടല്ലേ അപ്പ ഞാൻ ഡേറ്റ് നവംബർ അഞ്ചിനാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അതെ ബുധനാഴ്ച്ച നവംബർ അഞ്ചിന് പോയിട്ട് അവിടെ എനിക്കൊരു ഫ്രണ്ടിനെ കാണാനായിരുന്നു അത് കാണുകയും വേണം ഒരു രണ്ട് മൂന്ന് സ്ഥലത്തോട്ട് പോകാനുണ്ട് അപ്പോൾ ഒരു എട്ടാം തീയതി ഒമ്പതാം തീയതി അതിനുള്ളിൽ വരണ പോലെ ആയിരിക്കും അന്ന് സംസാരിച്ചതും കൂടെ ഇരുന്നപ്പോൾ നല്ല പെരുമാറ്റമൊക്കെ നല്ല രീതിയിലായിരുന്നു അയാള് തന്നെ വന്നാൽ കുഴപ്പമില്ലെന്ന് തോന്നി ആ അതായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ന് ബുക്ക് ചെയ്യാം പിന്നെ അഡ്വാൻസ് എന്തെങ്കിലും വേണോ ശരി എന്നാൽ ഞാൻ ഇപ്പോൾ ഒരഞ്ഞൂറ് രൂപ ഞാൻ പേയ്മെൻറ്റ് അയച്ച് തരാം ആ ഏത് അക്കൗണ്ടിലേക്കാണ് അയക്കണ്ടത് ആ നമ്പറില് ഗൂഗിൾ പേ ചെയ്താൽ മതിയല്ലേ

ആ അപ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യാം ആ അവൻ്റെ അല്ല നല്ല ഡ്രൈവിംഗ് ആയിരുന്നു കുഴപ്പമില്ല നമ്മളോട് അടുത്തുള്ള പെരുമാറ്റവും അതും കുഴപ്പമില്ല ഞങ്ങള് താമസിച്ചത് ഒരേടത്ത് തന്നെയായിരുന്നു അന്ന് പോയപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടായിരുന്നു അപ്പോൾ മൂപ്പരിനെ അവിടെ തന്നെ താമസിപ്പിച്ചു മൂപ്പര് കുഴപ്പം ഒന്നും ഇല്ല

ഇനി വായനാടാണ് ഞാൻ അങ്ങട് വരണോ അതോ അവര് എൻ്റെ ഇവിടേക്കും പാലക്കാട് വരുവോ അതോ ഞാൻ അങ്ങോട്ട് വരണോ ആലത്തൂര് വരണോ ഇങ്ങ് വീട്ടിലേക്ക് വരുമല്ലോ അല്ലെ ഇതിന് മുൻപ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങോട്ട് വരുവാണ് ചെയ്തതത് ഓ സ്ഥിരം ആളായപ്പോൾ വീട്ടിലേക്ക് വരും അല്ലെ അതെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എനിക്കാ ഡ്രൈവറുടെ നമ്പറ് ഒന്ന് അയച്ച് തരുമൊ ഓക്കേ ആ എന്നാൽ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് കൊടുക്കാം ശരി ഓക്കേ